നമ്മള് ചിത്രം വരയ്ക്കൊക്കെ കുറച്ച് സമയം നമ്മള് നീക്കിവെയ്ക്കാറുണ്ട് കാരണം ഇത്രയും തിരക്കുപിടിച്ച ജീവിതത്തിനിടയിലാണെന്നുണ്ടെങ്കിലും നമ്മള് ചിത്രം വരയ്ക്കാനൊക്കെ ഏകദേശം സമയം നീക്കിവെയ്ക്കാറുണ്ട് അതുപോലെ പാട്ടുപാടാന് അങ്ങനെയോരോ സംഭവങ്ങൾക്കും സമയം നമ്മള് നീക്കിവെയ്ക്കാറുണ്ട് അതിന് നമുക്ക് ഒഴിവുസമയങ്ങളായിട്ട് കിട്ടുന്നുമില്ല പക്ഷെ കിട്ടുന്ന സമയങ്ങളില് നമ്മള് മാക്സിമം ഇപ്പോള് പാട്ട് പാടാനാണെങ്കിലും പാട്ട് കേൾക്കാനാണെങ്കിലും അത് നമ്മള് നമ്മുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് നമ്മളോരോന്ന് ശ്രമിക്കാറുണ്ട് അതുപോലെ ചിത്രംവരയെന്ന് പറയുമ്പോള് നമുക്ക് കിട്ടുന്ന നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോ ദൃശ്യങ്ങള് നമ്മള് അത് പേപ്പറിലേക്ക് പകർത്തി വരയ്ക്കുന്നതല്ലേ അതിന് എത്രത്തോളം മനസ്സിൻ്റെ ഭാവനയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ആ ചിത്രങ്ങളുടെ ആ വ്യാപ്തി അത് നമ്മള് നന്നായിട്ട് ഇപ്പോള് കിട്ടുന്നതെന്താണോ അതിനെ നമ്മളൊരു ചിത്രത്തിൻ്റെ രൂപത്തില് നമ്മളൊരു ഔട്ട്ലൈൻ എന്നുള്ള രൂപത്തില് വരച്ച് ചെയ്യാറുണ്ട് പെൻസിൽ ഡ്രോയിങ് ആയിട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മള് വാട്ടർ കളറിങ്ങ് ആയിട്ട് ചെയ്യാറുണ്ട് പെൻസിലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് അത്യാവശ്യം നല്ല ഷേഡിങ്ങൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല ഭംഗിയില് നമുക്ക് ചെയ്യാന് പറ്റും വാട്ടർ കളര് അതേപോലെ പെയിൻറ് യൂസ് ചെയ്തിട്ട് വാട്ടർ കളറാകുമ്പോള് പല രീതിക്ക് നമുക്ക് ആ ഒരു ചിത്രത്തിന് എത്രത്തോളം എഫക്ട് ഒരു ഒറിജിനൽ എന്നുള്ള രൂപത്തില് കൊണ്ടുവരാൻ നമുക്ക് അതിനെ സാധിക്കും വാട്ടർ കളർ യൂസ് ചെയ്യുകയാണെങ്കില്